പ്രാദേശിക പത്രത്തിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പുതിയ കണ്ടെത്തലുകളൊക്കെ ഇന്ന് സാമൂഹികമായും ഈ ലോകവും ചുറ്റുപാടും നടക്കുന്നത് എന്താണെന്നും പുതിയ പുതിയ കണ്ടെത്തലുകളിലൂടെ മനസ്സിലാക്കിത്തരുകയാണ് പുതിയ കണ്ടല് കണ്ടെത്തലുകൾ പുതിയ സയൻസ് പരമായും അങ്ങനെ പലതരമായ രീതിയിലുള്ള കണ്ടെത്തലുകള് അറിയാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഓരോ ദിവസവും നടക്കുന്നതെന്നും ഈ പുതിയ ഉദാഹരണം ഓരോരോ ഉദാഹരണങ്ങൾ വെച്ചുള്ള അതും ഒക്കെ മനസ്സിലാക്കി തരുന്നുണ്ട് പ്രാദേശിക പത്രത്തിലൂടെ പുതിയ കണ്ടെത്തലുകളായ പുതിയ കണ്ടെത്തലുകളിൽ ഉൾപ്പെടുന്നത് എന്നാ റോബോട്ടിക്സിൻ്റെ പരമായും പിന്നെ വേറൊര് ശാസ്ത്ര ശാസ്ത്രപരമായ കണ്ടത്തെലുകള് അങ്ങനെ ഒട്ടധി ഒട്ടധി ഒട്ടധികം കണ്ടത്തെലുകൾ ഇതിലൂടെ കാണിക്കുന്നുണ്ട് അങ്ങനെ കണ്ടെത്തലുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് പുതിയ കണ്ടെ ഈ ഒരു ഉദാഹരണമായി തന്നെ എ ഐ എ ഐ ഒരു പുതിയ കണ്ടുപിടുത്തമാണ് എ ഐയിലൂടെ തന്നെ നമുക്ക് പലവിധം ഇപ്പം സ്കൂളിലും കോളേജിലാണേൽ തന്നെ ഈ എ ഐ എന്ന ഒരു പുതിയ മനസ്സിലാക്കി തരുന്നത് ഈ പ്രാദേശിക പത്രത്തിലൂടെ മനസ്സിലാക്കി തരുന്നത് എങ്ങനെ ഉപയോഗിക്കണമെന്നും അതിൻ്റെ ദൂഷ്യങ്ങളും നല്ല തരങ്ങളും എല്ലാം മനസ്സിലാക്കി തരുന്നുണ്ട് എ ഐ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഈ ഇപ്പം ഈ എ ഐയൊക്കെ ഇപ്പം എല്ലായിടത്തും തന്നെ സ്കൂളിലും കോളേജുകളിലും എന്താവശ്യം ഉണ്ടേലും നമുക്ക് മനസ്സിലാക്കി തരാൻ നമ്മെ പ്രത്യേകമായ രീതിയിൽ സഹായിക്കുന്നുണ്ട് പിന്നെ പിന്നെ സാമൂഹികപരമായ സോഷ്യൽ മീഡിയ ആളുകൾ ഒരു പുതിയ കണ്ടത്തെല്കളാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഞാ പുതിയ ഇൻസ്റ്റഗ്രാം ഒരു പുതിയ കണ്ടത്തെലുകളാണ് ഒരു പ്രാദേശിക പത്രം ഇൻസ്റ്റഗ്രാം മനസ്സിലാക്കി തരിക എന്ന് പറഞ്ഞാല് അവര് ഇതെങ്ങനെ ഉപയോഗിക്കെണ്ടതെന്നും ഇതിൻ്റെ ദൂഷ്യ ഫലങ്ങളും എല്ലാം നമ്മെ മനസ്സിലാക്കി തരുന്നുണ്ട് ആ അതുപോലെ തന്നെ ആ പുതിയ കണ്ടെത്തലുകൾ ഇത് വരെ ആകുന്നത് രാഷ്ട്രീയപരമായ കണ്ടെത്തലുകൾ കാണും രാഷ്ട്രീയത്തിലെന്തേലും ഒക്കെ ദൂഷ്യങ്ങളോ രാഷ്ട്രീയ തലവന്മാര് തല തലവന്മാരുടെ വാർത്തകളും ഇതുവൊക്കെ പ്രാദേശിക പത്രം മനസ്സിലാക്കി തരുന്നുണ്ട് എന്താണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ നടക്കുന്നതെന്നും എന്താണിപ്പോൾ രാഷ്ട്രീയ ചുറ്റുപാടെന്നും നമ്മെ ഈ പ്രാദേശിക പത്രങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട് ഈ പ്രാദേശിക വാർത്തകളിലൂടെ ഇന്നത്തെതല്ല ഇന്ന് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നാട്ടിലല്ല ഇന്നീ ലോകമെമ്പാടും നടക്കുന്ന കാര്യങ്ങളാണേലും പ്രാദേശിക പത്രം നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട് പുതിയ പുതിയ കണ്ടെത്തലുകൾ പറയുമ്പോൾ ഈയിടെ ചൈനയിൽ നടന്ന എച്ച് എം പി വി എച്ച് എം പി വി അസുഖത്തിനെ കുറിച്ചും അല്ലേ എന്തൊക്കെയാണ് നമ്മളതിനെ ചെറുത്ത് നിൽക്കാൻ സഹായിക്കാൻ സഹായപരമാകുന്ന എന്നും പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട് പുറത്ത് പോവുമ്പം മാസ്ക് ധരിക്കണം സാനിറ്റൈസർ ഉപയോഗിക്കണം ഇതുപോലെ പനിയും ഉള്ളവരിൽ നിന്ന് ഒര് അകലം പാലിക്കണം എന്നിങ്ങനെയൊക്കെ മനസ്സിലാക്കി തരുന്നുണ്ട് ഒട്ടനവധി നിരവധി